ഇപ്പം നെയ്ത്തലും തുന്നലിലും എനിക്ക് ഭാവിയിൽ പരീഷിക്കാനാഗ്രഹിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് എംബ്രോയിഡ്റി ആയിരിക്കും അതായതിപ്പോൾ ഒരു വൈറ്റ് വെള്ള തുണിയെടുത്ത് അതിൽ എൻറ്റേതായ ഡിസൈൻ എൻറ്റേതായ രീതിയിൽ പല നിറങ്ങളും കൊണ്ട് ഓരോ പൂക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും അതുപോലെത്തെ ആഘർഷകമായ ഡിസൈൻ ഉപയോഗിച്ച് സ്വന്തം കൈകൊണ്ട് തന്നെ നെയ്ത്ത് തുന്നിയെടുക്കുന്നതാണ് എടുക്കുന്നൊരു രീതിയെനിക്ക് പഠിച്ചാലും ചെയ്താലും കൊള്ളാമെന്നുണ്ട് അപ്പം പഠിക്കാനായിട്ടിപ്പോൾ അടുത്തുള്ള വല്ല തുന്നൽ ക്ലാസ്സിൽ പോയിട്ടോ അല്ലെങ്കിലിപ്പോൾ ഓൺലൈനിലും ലഭ്യമാണ് അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ സാമഗ്രികളാണ് വേണ്ടതെന്നറിഞ്ഞിട്ട് ഒന്ന് പഠിച്ച് തുടങ്ങിയിട്ട് അതുപോലെ ചെയ്താൽ കൊളളാമെന്നുണ്ട് അപ്പം അതുപോലെത്തെ കർച്ചീഫോ അഥവാ ബ്ലാങ്കെറ്റിലോ അഥവാ ചെറിയ ചെറിയ തുണി ആകർഷിക്കാൻവേണ്ടി വീട്ടിൽ വയ്ക്കുന്ന വല്ല തുണികളിലോ ഹാൻഡ് എംബ്രോയിഡ്റി പഠിച്ചിട്ട് പഠിച്ച് പരീക്ഷിച്ചിട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്